ആ ഹലോ എന്തായിരുന്നു ആ അതെ അതെ അല്ലോ ആ ആരാണ് സംസാരിക്കുന്നത് ആ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഒരു പാക്കേജ് ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഫുൾ ബോഡി മസാജ് വൺ വൺ വീക്ക് പരിപാടിയാണ് അത് അപ്പോൾ അതിനകത്ത് ഫുഡും എല്ലാം കൂടെ ഉള്ള ഒരു പാക്കേജ് ഉണ്ടായിരുന്നു അതിപ്പം ഒരാഴ്ച ആണ് നമ്മുടെ പാക്കേജ് വരുന്നത് നിങ്ങൾക്ക് അവിടെ അത് അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലതായിട്ട് തോന്നിയാൽ അതിലും ഒരു ലോംഗ് ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ആ ഒരു പരിപാടി ഒക്കെ

ഒരാഴ്ച മൊത്തം നാൽപ്പതിനായിരം രൂപയാണ് നമ്മുടെ പാക്കേജ് വരുന്നത് ആ ആ ഒരാൾക്ക് കൂടെ നിൽക്കാം ഫുഡും അക്കോമഡേഷനും അതൊക്കെ ഫ്രീയാണ് അവിടുന്ന് തന്നെ എല്ലാ ഫുഡും നമ്മൾക്ക് കിട്ടും ആ അതും കൂടെ കൂട്ടിയാണ് ആ മരുന്നും കാര്യങ്ങളുമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് തിരുമ്മലും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഫുഡും അക്കോമഡേഷൻ ഒക്കെ ഇവിടെ തന്നെ ഒരാഴ്ചത്ത ഫുൾ ചിലവും നമ്മൾ തന്നെ നോക്കുന്നത് അപ്പം എത്ര പേര് ഉണ്ട് നിങ്ങൾ വരുന്ന കാര്യം ഒന്ന് നേരത്തെ അറിയിക്കുവാണെങ്കിൽ ആ ഒരാഴ്ച കൊണ്ട് തിരുമ്മലും അതെല്ലാം റെഡിയാക്കി ഓക്കെ ആക്കി വിടാം ഒരാഴ്ചത്ത പരിപാടിയേ ഉള്ളൂ നമ്മുടെ പാക്ക് പാക്കേജും ആവുമ്പോൾ നിങ്ങൾക്ക് അത്രയും കൂടെ സേവിംഗ്സും ആവുമല്ലോ ആ അപ്പം താൽപ്പര്യം ഉണ്ടെങ്കിൽ അറിയിച്ചോളൂ ഒരാഴ്ച നേരത്തെ ഒന്ന് പറയണം വരുന്ന കാര്യം എന്നാണ് എങ്ങനെ ആണെന്നൊക്കെ

ഇല്ല സാർ ഒരു റൂമ് രണ്ട് പേര് അങ്ങനെയാണ് കൂടെ ഉള്ള ആൾക്ക് നിൽക്കാൻ അങ്ങനെ ആണ് വരുന്ന രണ്ട് പേർ ആ എന്നാൽ ശരി ആ അത് എല്ലാം അവിടെ തന്നെ ഒന്ന് പ്രൊവൈഡ് ചെയ്യും ആ ഓക്കെ ആയിക്കോട്ടെ ആ ഓക്കെ ആയിക്കോട്ടെ